ആ ആ അതെ അതെ അതെ അതെ ആ സാറിന് എന്താണ് വേണ്ടത് ചായ വേണോ കാപ്പി വേണോ സ്ട്രോങ് ചായ വേണമല്ലെ പിന്നെ കടിക്കാനെന്തെങ്കിലും ഏത്തയ്ക്കാപ്പമുണ്ട് ബോണ്ടയുണ്ട് കട്ലെറ്റുണ്ട് പരിപ്പുവടയുണ്ട് ഒരുപാട് ഐറ്റംസുണ്ട് മതിയല്ലെ ഉം അതെ വിത്തൗട്ട് വേണോ അതോ പാഴ്സലായിട്ട് വേണോ ഓക്കെ ഓക്കെ ആ പാഴ്സലായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് ആ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ

പിന്നെ ഇത് ചായ മധുരമിട്ട് വേണോ അതോ മധുരമിടാതെ വേണോ മധുരമിടാതെ വേണമല്ലെ ആ അത് ശരി അത് സാറെ ഇവിടെ ഇരുന്ന് ചായ കുടിച്ചിട്ടല്ലെ സാധനങ്ങള് കൊണ്ടുപോകുകയുള്ളൂ എ ഓക്കെ അതായത് ഫ്രഷായിട്ട് വന്ന് നമ്മളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് തന്നെ സാറിന് തന്നുവിടാന് വേണ്ടിയിട്ടാണ് ആ ആ ഏ ഉണ്ടുണ്ടുണ്ട് കാറ്ററിങ്ങുണ്ട് എന്നുവെച്ചുകഴിഞ്ഞാല് വീട്ടിലെന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കില് അത് പറഞ്ഞാല് മതി സാറിന്റെ ഓര്ഡര് അനുസരിച്ച് നമ്മള് ചെയ്തുതരും അ എന്ത് എല്ലാ പരിപാടികളും മ് ആ ആ ആ ആ തീര്ച്ചയായിട്ടും തീര്ച്ചയായിട്ടും എന്തൊക്കെ സാധനം വേണമെന്ന് പറഞ്ഞാല് മതി മ് ആ അ ഹ ആ

മ് മ് മ് ഓക്കെ ഏതൊക്കെ ഐറ്റം വേണമെന്നൊന്ന് പറഞ്ഞുതന്നാല് മാത്രം മതി അതന്നേരം തന്നെ റെഡിയാക്കി തരുന്നതായിരിക്കും മ് ഓക്കെ ഓക്കെ അ ഈ പാഴ്സല് ചെയ്യേണ്ടത് ഏത്തയ്ക്കാപ്പം ഏത്തയ്ക്കാപ്പം വേണം പരിപ്പുവടയും വേണം ആ രണ്ട് പാഴ് രണ്ടും പാഴ്സലായിട്ട് വേണം ആ അപ്പോള് ഇത് ഇത് എപ്പോഴത്തേക്കാണ് ഇന്ന് വൈകിട്ട് ഉപയോഗിക്കാനാണോ അതോ ഇപ്പം തന്നെ ഉപയോഗിക്കാനോ ആ എട്ട് മണിക്കുള്ള ഫങ്ഷന് വേണ്ടിയിട്ടാണല്ലെ ആ അതുശരി ആ ഹാ ആ അതെ തീര്ച്ചയായിട്ടും തീര്ച്ചയായിട്ടും ആ എട്ട് മണിക്കുള്ള ഫങ്ഷന് തന്നെ സാധനം തന്നുവിടാം തരാം ആ പിന്നെ വേറെയെന്തെങ്കിലും വേണോ സാറെ

ആ ആ അത് ശരി ശരി ശരി ശരി പിന്നെ വേറെയൊന്നും വേണ്ടല്ലോ

സാറെ ഒന്ന് പറയുമോ എന്തൊക്കെ വേണമെന്ന് ഒന്നുകൂടെ ആ ആ ആ ആ ആ ഇതിപ്പം കഴിക്കാനായിട്ട് പിന്നെ ബ്രെഡ്ഡ് വല്ലതും വേണോ സാറെ ഉണ്ടുണ്ട് അതായത് നല്ല ഫ്രഷ് ബ്രെഡ്ഡ് വന്നിട്ടുണ്ട് ആ ഓക്കേ പിന്നെ ബ്രെഡ്ഡ് അതിൻ്റെ കൂട്ടത്തില് ജാമോ അല്ലെങ്കില് പഴമോ മറ്റെന്തെങ്കിലും പഴവര്ഗ്ഗം ഞാലിപ്പൂവനുണ്ട് പാളയങ്കൊടനുണ്ട് ഏത്തപ്പഴമുണ്ട് മ് ഏതൊക്കെ വേണമെന്ന് പറഞ്ഞാല് മതി ചുണ്ടില്ലാ ചുണ്ടില്ലാക്കണ്ണനുണ്ട്

അ രക്തപൂവനുണ്ട് രക്തപൂവൻ അ അ ഏത് ഏത് ഏത് പൂവൻ വേണമെന്ന് പറഞ്ഞാല് മതി

ആ ചാരപ്പൂവനുണ്ട് ചാരപ്പൂവൻ ആ സുന്ദരിപ്പഴമുണ്ട് സുന്ദരി ഒരു പുതിയ ഐറ്റമാണ് സുന്ദരി ആ ആണല്ലേ ആ

പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വേറെ എന്തൊക്കെ വേണം സാറെ ഏറെക്കുറെ ആ ആ ആ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ സാറെ ആ അപ്പോള് ഇത്രയും സാര് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഞാന് പായ്ക്ക് ചെയ്ത് ആ ഓക്കെ എല്ലാം ഞാന് പായ്ക്ക് ചെയ്ത് വെച്ചേക്കാം അതിപ്പം തന്നെ തന്നേക്കാം അത് ഫ്രഷായിട്ട് തന്നെ ആ ഫ്രെഷായിട്ട് തന്നെ തന്നേക്കാമത് ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ശരി എന്നാല്